സംസ്ഥാനത്തെ കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു വികസനത്തിന് സർക്കാർ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് അതിന് വേണ്ടി തന്നെ സർക്കാർ ഈ കരകൗശല വികസന കോർപ്പറേഷൻ എന്നത് ഒരു സംരംഭം ഉയർത്തി കൊണ്ട് വരുന്നുണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ താൽപ്പര്യം ഉള്ളവർക്ക് കുറഞ്ഞ പലിശക്ക് ഈ ഒരു കരകൗശല വികസന കോർപ്പറേഷൻ വായ്പ്പകൾ നൽകുന്നുണ്ട് മാത്രവുമല്ല അവർക്ക് അവർ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക് ഈ കരകൗശല വികസന കോർപ്പറേഷനിൽ വിൽക്കാനും അതിൻ്റെ ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതു കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ തന്നെ വിൽക്കാൻ സാധിക്കുന്നു അതു കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് കിട്ടുന്ന ലാഭം എത്രയാണോ അത്രയും അവർക്ക് തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട് ഒരു ഇടനിലക്കാരില്ലാതെ അവർക്ക് അവരുടെ സാധനങ്ങൾ ഈ കരകൗശല വികസന കോർപ്പറേഷൻ്റെ കീഴിൽ വിൽക്കാനും കഴിയുന്നുണ്ട് അതു പോലെ തന്നെ നമ്മളെ ഗവണ്മെൻറ്റ് ഒരുപാട് എക്സിബിഷനും ക്രാഫ്റ്റ് ബസാറും എല്ലാം നടത്തുന്നുണ്ട് അതു വഴി ഒരുപാട് ആർട്ട് ചാൻസിന് അവരുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് മാത്രവുമല്ല കുറേ പേരെ ഈ ആർട്ട്സ് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ മികച്ച കരകൗശലങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി മികച്ച കരകൗശലന്മാർക്കുള്ള അവാർഡും ഗവണ്മെൻറ്റ് ഇപ്പോൾ നൽകി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ആർട്ട് സയൻസിന് പരിശീലനവും ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട് ഇതു വഴി നാടിൻ്റെ ഒരു വിധമുള്ള ഒരു തൊഴിലില്ലായ്മ നീക്കം ചെയ്യാനായിട്ട് ഗവണ്മെൻറ്റിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവണ്മെൻറ്റിൻ്റെ മറ്റൊരു കലാ സാംസ്കാരിക വികസനം നമ്മുടെ ഈ ഖാദി ബോർഡിലൂടെ കൊണ്ട് വരുന്നുണ്ട് ഈ ഖാദി ബോർഡിൻ്റെ ഒരു ഫുൾ നെയിം എന്ന് പറയുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡ്രസ്റ്റീസ് ഓഫീസ് എന്നാണ് അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡ്രസ്റ്റീസ് അതായത് ഗ്രാമങ്ങളിലുള്ള ഈ വില്ലേജ് ഇൻഡ്രസ്റ്റീസ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ അതും പ്രത്യേകിച്ച് ഈ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അവരെ ഉയർത്തി കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ വില്ലേജ് ഇൻഡസ്ട്രീസ് നോക്കുന്നത് അതായത് ഇങ്ങനെ കര കൗശലങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കൊടുത്ത് അവർക്ക് അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു മാത്രവുമല്ല ഈ ഖാദി ബോർഡിൻ്റെ ഔട്ട്ലെറ്റ്സിൽ അത് വിൽക്കാനും അവർ സഹായിക്കുന്നുണ്ട് ഈ ഹാൻഡി ക്രാഫ്റ്റ് ഐറ്റംസ് എന്നു പറയുന്നത് പല സാധനങ്ങൾ വച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതായത് ഈ തടി ചിരട്ട ബാംബൂ തുണികൾ ഈ നാച്ചുറൽ ഫൈബേഴ്സ് അത്പോലെ തന്നെ സ്ട്രോ അങ്ങനെയുള്ളതൊക്കെ വച്ചിട്ട് നമുക്ക് ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കേരളത്തിൻ്റെ ക്രാഫ്റ്റ് നോക്കുമ്പോഴും എപ്പോഴും നമ്മളെ നാട്ടിലെ ക്രാഫ്റ്റെന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഒരു ട്രഡീഷനു ആയിട്ടാണ് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക